നമുക്ക് കന്നുകാലികളൊക്കെ ഉണ്ടെങ്കില് ജനിച്ച ഇപ്പോള് ജനിച്ചിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കില് അതിനു വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുക്കും അതിന് അമ്മയായിട്ട് ഇണങ്ങാന് അതുപോലെ നമ്മുടെ പ്രകൃതി ആ കുഞ്ഞിനു പുതിയതാണല്ലോ അപ്പോള് അതുമായിട്ട് ഇണങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിക്കൊടുക്കും പുറത്തു നല്ല പുല്ലുള്ള പച്ചപ്പുല്ലുള്ള അടുത്തു കൊണ്ടുപോയി കെട്ടും പരമാവധി അതിൻ്റെ അമ്മേൻ്റെ അടുത്തുതന്നെ നിർത്താന് നോക്കും അതേപോലെ അതിനുവേണ്ട ഭക്ഷണങ്ങള് മറ്റേ തേങ്ങ അങ്ങനത്തെ എന്താണു സംഭവമില്ലേ അതൊക്കെ കൊടുക്കും എന്താണ് പിന്നെ അമ്മ എന്താണ് പശുവിൻ്റെ പാല് കൊടുക്കും പിന്നെ അതിന് എന്താണ് സാധാരണ രീതിയില് പശുക്കളൊക്കെ ഇല്ലാത്തല്ല അസുഖങ്ങള് വല്ലതുമുണ്ടെങ്കില് വീട്ടില് ചികിത്സിക്കാൻ പറ്റുന്നതാണെങ്കില് അതിനുള്ള ആൾക്കാരുണ്ടെങ്കിള് വീട്ടില്നിന്നുതന്നെ എന്താണ് ശുശ്രൂഷിപ്പിക്കും ഇനി വീട്ടില്നിന്നു ചെയ്യാൻ പറ്റാത്തതാണെങ്കില് അടുത്തുള്ള മൃഗാശുപത്രിയിലൊക്കെ കൊണ്ടുപോയി അതിനുള്ള എന്താണ് എല്ലാ ഇതും കൊടുക്കും അതേപോലെ വാക്സിനേഷൻ ഒക്കെ ചെയ്യും അതിൻ്റെ ഏതു സമയത്താണോ വാക്സിനേഷൻ വേണ്ടതെന്നുണ്ടെങ്കില് കുഞ്ഞിനും എന്താണ് അമ്മയ്ക്കും കൊടുക്കും കന്നുകാലികള് എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിൽ അതിനെ മെയിന്റെയിൻ ചെയ്യും പിന്നെ വീട്ടില് നോക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കില് നല്ലപോലെ നോക്കാന് അറിയുന്ന ആൾക്കാരുടെ അടുത്തു കൊണ്ടുപോയിക്കെട്ടും അല്ല കൊണ്ടുപോയിക്കൊടുക്കും അതേപോലെ അതിനു നല്ല പുല്ലു കിട്ടുന്ന ഇടത്ത് റിലാക്സായി പുല്ലു കിട്ടുന്നിടത്ത് നല്ല വയല് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കൊണ്ടുപോയി കെട്ടും പിന്നെ അതിന് അതിൻ്റെ പാലുകളൊക്കെ വാങ്ങിവയ്ക്കും എടുത്തിട്ട് പാലുകളൊക്കെ ശേഖരിച്ചിട്ടു വയ്ക്കും പിന്നെ പരമാവധി അതിനെ വീട്ടില്നിന്നുതന്നെ ശുശ്രൂഷിപ്പിക്കാൻ നോക്കും അതിനുള്ള എല്ലാ സാധനങ്ങളുമൊക്കെ കൊടുത്ത് അതിൻ്റേതായ രീതിയില് എന്താണ് ഇപ്പോള് കന്നുകാലികളെ നോക്കി പരിചയമുള്ള ആൾക്കാര് നോക്കി അതിനുള്ള ഇതൊക്കെ കൊടുക്കും പിന്നെ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ചോറ് മറ്റേതൊക്കെ കഞ്ഞിവെള്ളത്തില് ഇതാക്കിയിട്ട് അതിനു കൊടുക്കും ഇനി എന്താണ് ആടുകളൊക്കെ ആണെങ്കില് പ്ലവിൻ്റെ ഇല അതുപോലത്തെ ഭക്ഷണം കൊടുക്കും